സാമ്പത്തികമായി ഉയർന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ മായിട്ടോ ഉദ്യോഗസ്ഥ ലെവലിലോ ഒക്കെ സ്വാധീനൊള്ള ആൾക്കാരുടെയുമൊക്കെ കുറ്റങ്ങൾ പലപ്പോഴും പുറത്തുവരുന്നത് കുറവാണ് അത് അവരുടെ സ്വാധീനം മൂലം മറ്റുള്ളവർ ഒന്നുകിൽ അത് പേടിച്ചിട്ട് അവർ നാളെ നമുക്ക് ഉപദ്രവമുണ്ടാക്കുമെന്ന് തോന്നിയതുകൊണ്ട് പേടിച്ചിട്ട് അങ്ങനെ ഈവൻ പത്രമാധ്യമങ്ങളാണെങ്കിലും പല ഉന്നതരുടെയും പല പിന്നെ വലിയ വലിയ സ്ഥാപനങ്ങളുടെയുമൊക്കെ കാര്യങ്ങൾ അവർ മറച്ചുവെയ്ക്കാറുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ആധുനിക കാലത്തിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ ആ ന്യൂസ് ലീക്ക് ചെയ്ത് ഇപ്പം ഓൺലൈൻ മാധ്യമങ്ങൾ പലപ്പോഴും സാധാരണ ദൃശ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പത്രദൃശ്യ മാധ്യമങ്ങൾ മറച്ചുവെയ്ക്കുന്ന പലതും ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവരുന്നയൊരു പതിവുണ്ട് അതുകൊണ്ട് ഒരു തെറ്റായ കാര്യവും അനന്തമായിട്ട് മറച്ചുവെയ്ക്കുവാൻ സാധിക്കുമെന്ന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നില്ല അത് വെയ്ക്കുന്നത് തെറ്റാണ് യാതൊരു കാരണവശാലും ദൃശ്യ പത്ര മാധ്യമങ്ങൾ സാമ്പത്തികമോ മറ്റുള്ള സ്വാധീനങ്ങളോ ഒന്നും നോക്കിയിട്ട് ഹൈഡ് ചെയ്യുന്ന ആ പ്രവണത തന്നെ മാധ്യമരംഗങ്ങളിൽ ഏറ്റവും മോശമായ കാര്യമാണ് അത് അവർ ഉപേക്ഷിക്കണം ചില രാഷ്ട്രീയ പാർട്ടികൾ അവർ നടത്തുന്ന മാധ്യമങ്ങളുണ്ട്

അവരെങ്കിലും ശക്തമായി അത് മുന്നോട്ടുകൊണ്ടുവരണം ഭയ പിന്നെ ഭയരഹിതമായിട്ട് അത് പിന്നെ വാർത്ത പ്രചരിപ്പിക്കുവാനായിട്ടുള്ള ധൈര്യം അവർക്കുണ്ടാകണം അത് ഉണ്ടാകേണ്ടത് നമ്മളുടെ പൊളിറ്റിക്കൽ കറക്ടനസ് വഴിയാണ് പൊളി റ്റിക്കലി അധികാരത്തിൽ വരുന്ന ആൾക്കാർ തന്നെ ഇതിനെയെല്ലാം അടിച്ചമർത്തുവാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും അതിനൊന്നും ധൈര്യമുണ്ടാകില്ല എല്ലാവരും ആദ്യം അവരവരുടെ നിലനിൽപ്പാണ് നോക്കുന്നത് ആ നിലനിൽപ്പിൽ നിന്നും പിന്നെ ഭീഷണിയാക്കിക്കൊണ്ട് ചെയ്യാൻ ധൈര്യപ്പെടുന്ന വളരെ കുറച്ച് ആൾക്കാരേയുള്ളൂ അതുകൊണ്ട് അതിന് ഏറ്റവും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സാതന്ത്ര്യവും എല്ലാ അവകാശങ്ങളും പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട് അതിന് അവർക്ക് ധൈര്യം പകർന്നുവെങ്കിൽ മാത്രമേ അധികാരത്തിൽ വരുന്ന അവർ ഇവരെ സ്വാധീനിക്കാനും ഭീഷണിപെടുത്താനും ശ്രമിക്കാതിരുന്നുവെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ എങ്ങനെയാണെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ പിന്നെ നൂറ്റാണ്ടിൽ ഒരു തെറ്റായ പ്രവണതകളും കാര്യങ്ങളും എന്നേക്കുമായിട്ട് അത് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് കാലങ്ങളിലേക്കൊക്കെ അവർക്കത് ഹൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും അത് ശരിയാണ് അത് പിന്നെ വളരെ എങ്ങനെയെങ്കിലും ആ ഒരു ചെറിയൊരു ന്യൂസ് ആർക്കെങ്കിലും ഏതെങ്കിലും സത്യസന്ധമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് തീർച്ചയായും അത് ചിലപ്പോൾ അവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത പിന്നെ പല കാര്യങ്ങളും അവരും ചിലപ്പം ഓൺലൈൻ മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുകണക്കെ ധൈര്യപൂർവം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാധ്യമങ്ങളെ സ്വാധീനിക്ക ആ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരത് ചെയ്യിക്കുന്ന ഒരു രീതിയൊക്കെ നമുക്കിപ്പോൾ തോന്നാറുണ്ട് എങ്ങനെയാണെങ്കിലും ഈയൊരു ഹൈഡ് ചെയ്യാതെ ഏറ്റവും സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത് ന്യൂസുകൾ പുറത്തുവരാൻ വരുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിലപാട് സ്വീകരിക്കേണ്ടത് ഭരണത്തിലിരിക്കുന്ന ഭരണകർത്താക്കളാണ് അത് അവർ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു